ഹലോ ഇതേ ബീ സി ബുക്ക് സ്റ്റോറാണ് ആരാണ് വിളിക്കുന്നത് ഹലോ ഇതേ ബീ സി ബുക്ക് സ്റ്റോറാണ് ആരാണ് വിളിക്കുന്നത്

അതെ അതെ എത്ര ബുക്കാണ് മാഡം ആവശ്യം മാഡത്തിന് ഇരുപത് ബുക്ക് ഇരുപതും അൺ റൂൾഡാണ് വേണ്ടത് ഓക്കെ ഓക്കെ മാഡം ഇപ്പം സൈസെങ്ങനാണ് ചെറിയ നോട്ട് ബുക്കാണോ അതോ വലിയ കിംഗ് സൈസ് ബുക്ക് കിങ് സൈസ്സ് ബുക്കാണ് അപ്പം കിങ് സൈസ് ബുക്കിനിപ്പോൾ ഒരു ബുക്കിന് അറുപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ അറുപത് രൂപയാകുമ്പോൾ അതെ അതെ അതെ അറുപത് രൂപയാണ് ഒരു ബുക്കിന് വില വരുന്നത് ഇരുപത് ബുക്കായിട്ട് മാഡം ഇത് കൂടാതെ എന്തേലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഞങ്ങൾക്കിവിടെ ഇത് ഈ ബുക്ക് കൂടാതെ ബാക്കി റൂൾഡായിട്ടുള്ള ബുക്ക്സൊണ്ട് ആ അതേപോലെ തന്നെ ഇപ്പം സ്റ്റേഷനറി ഐറ്റംസ് പെന്ന് പെൻസിൽ സ്റ്റേപ്ലർ പഞ്ചിങ് മെഷീൻ ഇതെല്ലാം ഇപ്പോൾ ജൂൺ മാസം സ്കൂള് തുറക്കുന്ന പ്രമാണിച്ച് ഞങ്ങൾ ഇപ്പോൾ ഓഫറ് കൊടുക്കുന്നുണ്ട് ഓ മാ മാഡം ബാക്കി എന്തേലും റൈറ്റിങ് ബോഡ് എക്സാം എഴുതുന്ന റൈറ്റിങ് ബഡെല്ലാം പുതിയ പുതിയ കളക്ഷൻസ് ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ മാഡം അങ്ങനുള്ള കളക്ഷൻസ്സ് ഇവിടെ നോക്കുന്നോ വേറെ എന്തേലുങ്കൂടെ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്കൗണ്ടിൻ്റെ കാര്യം ആലോചിക്കാം മാഡം അങ്ങനെന്തേലും താൽപ്പര്യമുണ്ടോ ആ പെയറ് കിട്ടും ഏത് കളറാണ് മേടം ഏത് കളറാണ് വേണ്ടത് ബ്ലൂ കളറ് പെന്നാണ് വേണ്ടത് ഓക്കെ അത് അപ്പം എത്ര എണ്ണം വേണം ഒരു പായ്ക്കറ്റ് പത്തെണ്ണാണൊര് പായ്ക്കറ്റിൽ വരുന്നത് ആ അഞ്ച് രൂപേടയുമുണ്ട് മൂന്ന് രൂപേടയുമുണ്ട് പത്ത് രൂപേടെ പേനയുണ്ട് അഞ്ച് രൂപേടെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മുപ്പതെണ്ണം കാണും വേറെന്തേലും വേണോ മേടം ഓ ഓക്കെ അപ്പം ആ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ബുക്കിന് അറുപത് രൂപയാണ് വില വരുന്നത് അത് നമുക്ക് ഒരു അൻപത് രൂപയ്ക്ക് തരാം പത്ത് രൂപ ഒരു ബുക്കിന് ഡിസ്ക്കൗണ്ട് തരാം അതിപ്പോൾ സ്പെഷ്യലോഫറുള്ളതുകൊണ്ടാണ് മത്രവല്ല മാഡവിത്രേം ബൾക്കായിട്ടെടുക്കുന്നോണ്ടും കൂടെയാണ് അങ്ങനൊരോഫറ് വരുന്നത് അപ്പോൾ ഒരു ബുക്കിന് അൻപത് രൂപ വെച്ച് തരാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പം മാഡം വന്ന് വാങ്ങുവല്ലോ ആ ഞങ്ങളുടെ ഷോ റൂം ഇവിടെ പാളയത്തുണ്ട് പിന്നെ മറ്റ് ബ്രാഞ്ച് ഉള്ളൂരും ശ്രീകാര്യോണ്ട് അപ്പം എവിടെപ്പോയാലും മാഡത്തിനീ ഓഫർ അവൈൽ ചെയ്യാൻ പറ്റും ഇന്ന് ആ വൈകുന്നേരം ഏഴ് മണി വരെയുണ്ട് മാഡം അതിന്റകത്ത് വന്നാൽ മതിയാവും അതെ അതെ ഓക്കെ ഓക്കെ ആ ശരി മാം താങ്ക് യൂ താങ്ക് യൂ